കോഴിവളർത്തൽ എന്നതിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോള് കോഴിവളർത്തൽ പ്രധാനമായിട്ടും ഇറച്ചിക്ക് വേണ്ടി മാത്രം വളർത്തുന്ന കോഴികളുണ്ട് ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി ഉപയോഗി വളർത്തുന്ന കോഴികളുണ്ട് അതോടൊപ്പം തന്നെ മുട്ടയ്ക്ക് മാത്രമായിട്ട് ഉപയോഗി വളർത്തുന്ന കോഴികളുമുണ്ട് ഇത്തരം കോഴികളുടെ പരിപാലനം പല തരത്തിലാണ് മുട്ടക്കോഴികളെ വളർത്തുമ്പോള് അവയെ കൂട്ടിൽത്തന്നെ ഇട്ട് കോഴികൾക്കാവശ്യമായിട്ടുള്ള കോഴിത്തീറ്റതന്നെ കൊടുത്ത് അവയെ വളർത്തേണ്ടതുണ്ട് അതേപോലെത്തന്നെ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ട് നമ്മളുപയോഗിക്കുന്ന നാടൻ കോഴികള് അവ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും അതായത് വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകളും കോഴിത്തീറ്റയും മറ്റു പറമ്പിലെ കീടങ്ങളും പുഴുക്കളും എല്ലാം തിന്നിട്ടാണ് അവ ജീവിക്കുന്നത് കോഴികൾക്ക് അവരുടെ ഇപ്പോള് ഇപ്പോള് ഇപ്പോഴത്തെ കാലത്ത് കോഴിവളർത്തലിൻ്റെ സമയത്ത് അതായത് മുട്ടക്കോഴികളെ വളർത്തുമ്പോള് അവർക്ക് വാക്സിൻ നൽകേണ്ട ആവശ്യമുണ്ട് നാൽപത്തിയഞ്ച് ദിവസത്തിലൊരിക്കല് എല്ലാ കോഴികൾക്കും തുള്ളിമരുന്നായിട്ട് വാക്സിൻ കൊടുക്കേണ്ടതുണ്ട് ഇടയ്ക്ക് കാൽസ്യം മരുന്നുകള് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഇവയ്ക്ക് നന്നായിട്ട് കാൽസ്യ ഇവരുടെ ശരീരത്തിൽ കാൽസ്യം നിലനിൽക്കുകയും അങ്ങനെ കാൽസ്യമുള്ള മുട്ടകള് ഇവര് ഇടാൻവേണ്ടിയിട്ട് സന്നദ്ധരാവുകയും ചെയ്യുകയുള്ളു അതുകൊണ്ട് ഓരോരുത്തരും കോഴികളെ നോക്കുമ്പോള് ആവശ്യമായിട്ടുള്ള പരിപാലനവും കൊടുക്കണം ആവശ്യത്തിന് വെള്ളം കൊടുക്കണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കോഴി ചത്തുപോകാനുണ്ട ഇടയുമുണ്ട് ആവശ്യത്തിന് ആഹാരം കൊടുക്കണം അപ്പോൾ മാത്രമേ വളർച്ചയിലേക്ക് കോഴി കോഴികള് നീങ്ങത്തുള്ളൂ കോഴിക്കുഞ്ഞുങ്ങള് വളർച്ചയിലെത്തുകയുള്ളൂ അമ്പത് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങള്ക്ക് നല്ല പോഷകമടങ്ങിയ ആഹാരസാധനങ്ങൾ കൊടുക്കുമ്പോള് അവര് നന്നായിട്ട് വളരുകയും ഉടനടി മുട്ടകള് ഇടുകയും ചെയ്യുന്നു മുട്ടക്കോഴികളെ സംബന്ധിച്ച് പറയുകയാണെങ്കില് അവർക്ക് ദിവസം തോറും മുട്ടത്തീറ്റ അതായത് കോഴിത്തീറ്റ കൊടുത്ത് അവയെ വളർത്തുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള പോഷണവും വെള്ളവും കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ദിവസേന തന്നെ മുട്ട കിട്ടുന്നതാണ് കോഴി കർഷകര് പ്രധാനമായിട്ടും അവരെ അലട്ടുന്ന മറ്റു പ്രശ്നമെന്ന് പറയുന്നത് കോഴികൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന തൂക്കം അതായത് തൂക്കം മീൻസ് വസന്ത പോലെയുള്ള രോഗങ്ങള് തൂങ്ങിനിൽക്കുന്ന അവസ്ഥ ഈ രോഗം ഒരു കോഴിക്ക് വന്നിട്ടുണ്ടെങ്കില് മറ്റു കോഴികളിലേക്കും കടന്നുവരുവാനും എല്ലാ കോഴികളും ചത്തുപോകാനും ഇടയുണ്ട് അതുകൊണ്ട് സമയാസമയങ്ങളില് ഇവയെ നമ്മള് പരിപാലിക്കുകയും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളടങ്ങിയ ആഹാരം കോഴികൾക്ക് നൽകി അവയ്ക്ക് അവയ്ക്ക് നൽകുകയും ചെയ്യേണ്ടതുണ്ട്